പിന്നെ എനിക്കിങ്ങനെ ഞാൻ സ്പോർട്സ് ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ അത്രയ്ക്കും ക്രിക്കറ്റ് മാത്രമേ കാണാറുള്ളൂ അപ്പം അതുകൊണ്ട് അതും മെൻസിൻ്റെ കുറേ കാണാറുണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താ ഫീമെയിൽ എന്താ സ്പോർട്സ് അങ്ങനെ വലുതായിട്ട് കാണാറില്ല പക്ഷെ കേൾക്കാറുണ്ട് ഇങ്ങനെ അപ്പോൾ കൊറച്ച് വല്യ പിടുത്തൂല്ല ഒരു ബേസിക്കായിട്ടുള്ളൊരു നോളേജേ ഉള്ളു പിന്നെ ഇവരൊക്കെയെന്നു പറയുമ്പോൾ ഇവർ കുറേ നമ്മൾ ന്യൂസിൽ കേൾക്കാറുണ്ട് ഇങ്ങനെ ഇപ്പോൾ പോലും ഒരു കൊച്ച് നമ്മുടെ കേരളത്തിൽ ഇരുന്ന് ഒളിമ്പിക്സിൽ പോയിട്ട് ഗോൾഡ് മെഡല് മേടിച്ചിട്ട് വന്നു അത് കേട്ടിരുന്നു പേരും മറന്നുപോയി ഓർമ്മയില്ല പിന്നെ വേറെ വേറെ എനിക്കങ്ങനെ പിന്നെ ഗേൾസ് വരണം അവർ ഇങ്ങനെ ഗേൾസിങ്ങനെ അടുക്കളപ്പുറത്ത് പെട്ടുപോകുക അങ്ങനെ ആ ഒരു രീതിയിലാവില്ല ഇനിയിപ്പം ഫ്യൂച്ചർ ഡെവലപ്പാവുമ്പോൾ അവരുടെ രീതിയിൽ ഡെവലപ്പാകണമല്ലോ അപ്പോൾ അവരിങ്ങനെ അടുക്കളയിൽ മുടങ്ങി കിടക്കുകയും വീട്ടിൽത്തന്നെ കിടക്കുകയൊക്കെ ചെയ്താൽ അത് പാടാണ് അപ്പോൾ അവരവരുടെ രീതിയ്ക്കൊന്ന് ഗ്രോ ചെയ്യുക അവർ ഡെവലപ്പ് ചെയ്യുക സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അവർക്കുള്ളൊരു പേര് ഇപ്പോൾ ആണുങ്ങൾക്ക് പേരൊക്കെയിടാൻ കഷ്ടപ്പെടണം പക്ഷേ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾ കുറച്ചും കൂടി കഷ്ടം ഫാമിലി ഇഷ്യൂസ് വരും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പെണ്ണുകൾക്ക് പക്ഷേ അതെല്ലാം മറികടന്ന് ചെയ്യുന്നവരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പി വി സിന്ധു സാനിയ മിർസ ഇങ്ങനെ പി ടി ഉഷ ഇങ്ങനെ കുറച്ചു പേർ പിന്നെ ആ പിന്നെ വേറെ വേറെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല സ്പോർട്സിൽ ഇങ്ങനെ എനിക്കങ്ങനെ ഞാൻ ന്യൂസൊന്നും വായിക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അറിയാത്തത് പക്ഷേ കേരളം എനിക്കു തോന്നുന്നു സൗത്തിൽ ഇരുന്ന് ഫീമെയിൽസിൻ്റെ ഒരിത് കുറവാണെന്ന് തോന്നുന്നു ഞാൻ കേൾക്കാത്തതുകൊണ്ടാണോ അതോ ഇതിപ്പോൾ വെളിയിൽ പബ്ലിസിറ്റി ആകാത്തതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂട പക്ഷേ എൻ്റെ ഒരറിവിൽ സൗത്തിൽ ഇരുന്ന് വളരെ ശോകമാണ് ഫീമെയിലിൻ്റെ ആ ഒരു സ്പോർട്സിൻ്റെ കാര്യത്തിൽ നല്ല ഒരു ശോകമായിട്ടാണ് ഇരിക്കുന്നതും പിന്നെ എൻ്റെ ഒരറിവിൽ പിന്നെ വേറെ വേറെ പിന്നെ ആ പിന്നെ ഗവർമെൻ്റ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതൊക്കെ എടുക്കണം ഇങ്ങനെ ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെ സ്പോർട്സിൽ കയറുന്നു അങ്ങനെ സ്പോർട്സിനുവേണ്ടി ആണുങ്ങൾക്ക് കുറേശ്ശെ അതുതന്നെ ഗേൾസിനും ചെയ്യണം എന്നുള്ളൊരു രീതിയ്ക്ക് തന്നെ നമ്മുടെ കോളേജിലാണെങ്കിലും എൻ സി സി ഉണ്ട് എൻ സി സി അല്ലാതെ സ്പോർട്സ് സ്പോർട്സ് കളിക്കുന്ന കുറച്ചുപേരുണ്ട് എന്നാലും വളരെ കുറവാണ് ഒന്നോ രണ്ടോ പേരോ അങ്ങനെ വല്ലതും കാണും അങ്ങനെ അങ്ങനെ ഇപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ ആ കോളേജിലും കോളേജിൻ്റെ കാര്യം എന്നു പറയുമ്പം മാനേജ്മെൻ്റ് തന്നെ ഇങ്ങനെ നമുക്ക് സ്പോർട്സിൻ്റെ ക്ലബ്ബൊക്കെ ഉണ്ട് സ്പോർട്സിൻ്റെ ക്ലബ്ബെന്നല്ല സ്പോർട്സിൻ്റെ ഈ ഒരു അവരുടെ ഒരു ഇതുണ്ട് അപ്പോൾ അവരുതന്നെ ഇനിഷിയേറ്റീവ് എടുത്ത് ഗേൾസിനെ വലിച്ച് കയറ്റണം ഇങ്ങനെ ഇൻ്ററസ്റ്റഡ് ആയിട്ടുള്ളവർ അത് ചിലപ്പോൾ ചിലവർക്ക് പേടി ഉണ്ടാവും പേടിയല്ല നാണം ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ചിലപ്പോൾ കാണും അവരെ വിട്ട് വിടുക താല്പര്യം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാതങ്ങനെ മടിച്ചു നിൽക്കുന്ന കുറേ പേരുണ്ടാവും അവരെയൊക്കെ കണ്ടെത്തി കോളേജിലിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു പിന്നെ അതൊക്കെയാണ് സംഭവങ്ങൾ പിന്നേ പിന്നെ ഈ എന്താ ഗവർമെൻ്റ് തന്നെ എല്ലാം ചെയ്യുക അവർ ഇങ്ങനെ സ്പോർട്സിന് മിനിസ്റ്ററൊക്കെ ഇല്ലേ പുള്ളി തന്നെ എന്താ കേരളത്തിലും സ്പോർട്സിന് മിനിസ്റ്ററുണ്ട് എന്താ ഇങ്ങനെ ഇന്ത്യയിലും സ്പോർട്സിന് മിനിസ്റ്ററുണ്ട് ഇവർ കുറച്ചുംകൂടി ഈ ഇനിഷ്യേറ്റീവ് നല്ല രീതിയ്ക്ക് എടുക്കണമെന്ന് തോന്നുന്നു എനിക്ക് ഈ എന്താ അല്ലാതെ സ്പോർട്സിനു കുറേ ചെയ്യുന്നുണ്ട് അതു പക്ഷെ എന്താ ഒരു എയ്റ്റി പെർസെൻ്റേജ് മെൻസിനത് ഗുണമാകുന്നുള്ളൂ ഫീമെയിൽസിന് എത്ര രീതിയ്ക്ക് ഗുണമാകുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂട നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഫുട്ബോളിന് ഗേൾസിൻ്റെ ടീമുണ്ടോയെന്നും ഒരറിവുമില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ വേറെ ഇപ്പോൾ

പിന്നെ എൻ്റെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും സ്പോർട്സിന് താല്പര്യം ഉള്ളവരാരും ഇല്ല അതുകൊണ്ടുതന്നെ പക്ഷേ അവർക്ക് ഉള്ള എൻ്റെ പപ്പ പറയാറുണ്ട് ഇങ്ങനെ അവരവരുടെ താല്പര്യം ആയിട്ടുള്ള ഇഷ്ടത്തിൽ അവരവരെ വിടുക ഞാനൊന്നും പറയില്ല നിങ്ങൾക്ക് എന്തിഷ്ടമാണോ അത് നിങ്ങൾ ചെയ്യുക അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഒരു വിഷയം ഇല്ലയെന്നാൽ അതുപോലെയൊക്കെ ആയിരിക്കണം ഇപ്പോൾ കല്ല്യാണം കഴിച്ചാലും ഹസ്ബൻ്റ് എന്താ ഇപ്പോൾ വൈഫിന് താല്പര്യം ഉണ്ടെങ്കിൽ വിടണം അതൊക്കെ ആണ് അപ്പം അതവരുടെ ഒരു ഡ്രീമാണ് അപ്പം അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ മെൻസ് സപ്പോർട്ട് ചെയ്തു നിൽക്കണം അതൊക്കെ ചെയ്യണം ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ആർക്കും താല്പര്യം ഇല്ല ഇങ്ങനെ സ്പോർട്സിനോട് പക്ഷേ അവർക്ക് താല്പര്യമുള്ള സാധനത്തിൽ ആർക്കും അങ്ങനെ എതിർപ്പൊന്നുമില്ല